ഇപ്പോൾ കേരളവും മറ്റു സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവേ കേരളത്തിൽ വലിയ കൃഷികളും കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ കൂടുതൽ ആൾക്കാർ വാങ്ങുന്നതും പുറമേ നിന്നാണ് അതായത് അരി പലവ്യഞ്ജനങ്ങൾ പച്ചക്കറികൾ ഇതെല്ലാം പുറത്തു നിന്നാണ് വാങ്ങുന്നത് അപ്പോൾ കൂടുതലായിട്ടും അങ്ങനെ പല എന്താ പറയുക ഇപ്പം പല മറ്റു സംസ്ഥാനങ്ങളും ആയിട്ട് നല്ല രീതിയിൽ ബന്ധം പുലർത്തുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് വേണമെങ്കിൽ പറയാം കാരണം എന്ത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം പല രീതിയിൽ അതായത് ഓരോ ഉടമ്പടികളും കരിയങ്ങളൊക്കെ ഇവർ വെച്ചിട്ടുണ്ടാകും അതിന് അതിനനുസരിച്ചാണ് ഇവർ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ കർണാടകയിൽ നിന്ന് പല രീതിയിലുള്ള എന്താ പറയുക പല സാധനങ്ങളും കൊണ്ട് വരുന്നത് നമ്മുടെ കേരളത്തിലേക്കാണ് കേരളത്തിൽ നിന്ന് അങ്ങനെ വലിയ രീതിയിൽ കൊണ്ട് പോകുന്നൊന്നും ഇല്ലെങ്കിലും ചെറിയ ചില ചില സാധങ്ങൾ മാത്രമാണ് കേരളത്തിൽ നിന്ന് കൊണ്ട് പോകുന്നത് ഈ പച്ചക്കറി അങ്ങനത്തെ സാധങ്ങളൊന്നും കേരളത്തിൽ നിന്ന് കൊണ്ട് പോകാറില്ല പ ബാക്കിയുള്ള ഐറ്റംസ് മാത്രമാണ് കൂടുതലായിട്ടും കൊണ്ട് പോകുന്നത് എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഈ ഓണത്തിന് തന്നെ നമ്മൾ ഗുണ്ടൽപേട്ട ആ ഭാഗത്ത് നിന്നാണ് പൂവും കാര്യങ്ങളൊക്കെ കൊണ്ട് വരുന്നത് അവിടുന്നാണ് നമ്മൾ പൂവ് ഇവിടെ വന്നിട്ട് കച്ചവടം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അങ്ങനെ പല രീതിയിലും കേരളവും മറ്റു സംസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്